ഹലോ അതെ ആ പറയൂ മേഡം ഹമ് സോ ആദ്യമേ തന്നെ സോറി ചോദിക്കയാണ് മേഡം കാരണം ഇപ്പോൾ നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് പക്ഷേ അത് ചിലപ്പോഴെ റീച്ചാകുള്ളൂ നിങ്ങളൊരു പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യൂ അപ്പോഴത്തേനും എത്താൻ സാധ്യതയുണ്ട് പൈസ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസത്തെ ഏഴ് ദിവസം സമയമെടുക്കും മാം ഇപ്പം ഇപ്പോൾ വന്നാലിവിടെ നെറ്റിൻ്റെ പ്രോബ്ലമാണ് അപ്പം അതുകൊണ്ടാണ് കൂടുതലും ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യങ്ങളിങ്ങനെ പോകുന്നത് മാം വിഷമിക്കേണ്ട ഏതായാലും ഒരു ഇരുപത്തെട്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് നോക്കാം എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് നോക്കാം എന്തെങ്കിലും വന്ന് ഇല്ലെങ്കിൽ മാം വരുന്നെങ്കിൽ വരുന്നോണ്ട് കുഴപ്പമില്ല വന്നൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി ഇ ഇട്ടാലും പ്രശ്നം വരുന്നില്ല രണ്ട് ദിവസം മുൻപേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അത് ര ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കലി ശരിയായി അതിപ്പോൾ നെറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മാംമിന് ആ പൈസ തിരിച്ച് കിട്ടും പണം അങ്ങ് പണം അങ്ങനെ നഷ്ടപ്പെടില്ല മാം അത് നമ്മുടെ ഉറപ്പാണല്ലോ നിങ്ങളെ ബാങ്കിലെ നിക്ഷേപിച്ചതല്ലേ നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ടപ്പെടുത്തി നടത്തി നഷ്ടപ്പെടുത്തില്ല മാം ഏതായാലും വെയിറ്റ് ചെയ്യൂ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം വന്നാൽ മതിയാകും അതിനുമുമ്പേ നമുക്ക് ഇപ്പം ഒന്നും തൽക്കാലം വന്നാലും ഒന്നും ബാങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏതായാലും മാം നാളെ വരു ഇന്ന് ഇന്ന് വന്നാലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ആ അത് ആ നെറ്റിൻ്റെ ക നെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് മാം ഇപ്പോൾ വേറെ ഒരു പ്രശ്നവും ഇല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് അത് കംപ്ലയിൻറ്റായിട്ട് എടുത്ത് ഞങ്ങൾ ചെക്ക് ചെയ്യാം ഏതായാലും മാം ഇന്നൊരു ദിവസത്തേന് ഞങ്ങളോട് ക്ഷമിക്ക് ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തിന് മാനേജരെ കണ്ടിട്ടും കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നെറ്റിൻ്റെ ഇഷ്യൂ ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ